ഇത് ചായക്കടയല്ലേ ആ അടുത്തയാഴ്ച്ച എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് എനിക്ക് ചായയും പലഹാരങ്ങളും ബൾക്കായിട്ട് വേണമായിരുന്നു അപ്പോൾ അതിൻ്റെ വിലവിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണെ അമ്പത് തൊട്ട് എഴുപത് പേര് വരെ വരാൻ സാധ്യതയുണ്ട് ആ കറക്റ്റ് നമ്പറ് തലേദിവസമേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം കറക്റ്റ് പറയാൻ പറ്റത്തില്ല ആ ആ അപ്പം ചായയ്ക്ക് ചായയ്ക്ക് എത്രയാണ് രൂപ ഇടാതെ വിത്തൗട്ടാണെങ്കിൽ വില കുറയുമോ ആ അതുകൂടാതെ കടികളായിട്ട് ഏതൊക്കെയാണ് ഉളളത് പലഹാരങ്ങൾ ഇതിന് ഓരോന്നിൻ്റെയും വിലയും കൂടി പറയാമോ

ബ്രഡ് ഒക്കെ ഉണ്ടോ

ബ്രഡിന് ആകുമ്പോൾ എത്ര രൂപയാവും ഇല്ല ബ്രഡായിട്ട് ബ്രഡായിട്ട് വേണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണോ അതോ

ആ ആ അതുകൂടാതെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെറൈറ്റി കടികളൊക്കെ ഉണ്ടോ ആ വെറൈറ്റി ഒന്നുമില്ല ആ കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഒക്കെ അവൈലബിളാണോ അപ്പോൾ അതിൻ്റെ റേറ്റ് അതിൻ്റെ റേറ്റ് എങ്ങനെയായിരുന്നു പത്ത് രൂപയാണോ ആ ആ അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ തലേദിവസം ഞാൻ വിളിക്കാം ഫംഗ്ഷനുള്ളതിൻ്റെ തലേദിവസം ഞാൻ വിളിക്കാം ആ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നമ്പറ് ഞാൻ പറയാം ആ പാത്രം പാത്രം കൊണ്ടുവരണം അല്ലേ

ആ ഓക്കെ കൊണ്ടുവരാം ഇല്ല വേറെയൊന്നുമില്ല എന്നാൽ ശരി ആ